അതേ അതേ അതേ ആ കഥകളിയൊക്കെ പഠിപ്പിക്കുന്ന പ്രീതിയാണ് ആ ആ അതേ നിങ്ങൾക്ക് പഠിക്കാനാണോ അതോ വേറെ ആരെങ്കിലും വിടാൻ വേണ്ടിയാണോ ആ ഇത് സാധാരണ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു മാസത്തെ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സ് ഒരു വർഷത്തെ കോഴ്സാണ് ആ അപ്പം ശരിക്കും നമ്മൾ ഒരു വർഷത്തെ കോഴ്സ് എടുക്കുവാണ് ഏറ്റവും നല്ലത് എന്നാലാണ് നമുക്ക് ആ ഒരു കംപ്ലീഷൻ കിട്ടത്തുള്ളു ഒരു വർഷത്തെ കോഴ്സിനാണെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നതിന് മുപ്പതിനായിരം രൂപ ഇതിപ്പം നിങ്ങൾ ആ മുപ്പതിനായിരം രൂപ ഒന്നിച്ച് അടയ്ക്കണം എന്നില്ല ആ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ഇപ്പോൾ അടക്കുന്നു അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും മുപ്പതിനായിരം രൂപ തിരിച്ച് ആയിരിക്കണം ആ പൂർണ്ണമായിട്ടും നിങ്ങൾ തന്ന് തീർക്കണം എന്തോ ആ ഇത് ഇത് മാക്സിമം ഞാൻ കുറച്ചിട്ടാണ് ഇപ്പോൾ ഈ ഫീസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വേറെ ഒരു അക്കാദമിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഫീസാകും ശരിക്കും നമ്മൾ ഈ ഒരു ആ ഈ ഒരു കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപം നമ്മൾ പഠിപ്പിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ ഒരു ഇത് എമൗണ്ടാ ഞാൻ ഇപ്പം പറഞ്ഞേക്കുന്നത് മുപ്പതിനായിരം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആറ് മാസത്തെ കോഴ്സിനാണെങ്കിൽ ഇരുപതിനായിരം രൂപ മൂന്ന് മാസത്തേതിനാണ് പതിനായിരം രൂപ പക്ഷേ നമ്മൾ ഈ മൂന്ന് മാസം കൊണ്ടൊന്നും ഈ കോഴ്സ് പഠിച്ച് തീരത്തില്ല

അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വർഷം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആ പൈസയൊന്നും ഓർത്ത് വിഷമിക്കണ്ട കാരണം നിങ്ങൾ ഒന്നിച്ചു ആ ആ മാക്സിമം ഞാൻ ഇത് കുറച്ചിട്ടാണ് പറഞ്ഞത് ഇനി ഇപ്പം നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് തന്നിട്ട് പിന്നെ ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നത് അനുസരിച്ച് തന്നാൽ മതി കാരണം ഈ കോഴ്സ് കംപ്ലീറ്റായി നിങ്ങളുടെ അരങ്ങേറ്റത്തിന് മുമ്പ് എനിക്ക് പൈസ തന്നു തീർക്കണം എന്നേ ഉള്ളു കാരണം ഇവിടെ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട് എല്ലാവരും തന്നെ ഇങ്ങനെ ഒന്നിച്ച് തരുന്നവരൊന്നും അല്ല അപ്പം നമ്മൾ ഇതവർ ആ ആ ഒത്തിരി ഒത്തിരി കുട്ടികളുണ്ട് പഠിക്കാനായിട്ട് ആ മൂന്ന് ബാച്ചിലേയും കൂടി കൊണ്ട് കൂടുതലും കുട്ടികൾ ഈ ഒരു വർഷത്തെ കോഴ്സാ ചൂസ് ചെയ്യുന്നത് കാരണം ഈ ഒരു വർഷം കൊണ്ടാണ് നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റാക്കാൻ പറ്റത്തുള്ളു ഇതങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കലാരൂപം അല്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ എന്തോ ആ ഞാൻ ഇപ്പോൾ ഒരു ഒരു ബ്രാഞ്ചിലെ പഠിപ്പിക്കുന്നുള്ളു നമുക്ക് ഇങ്ങനെ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുട്ടികളുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഓടി നടന്നിട്ട് കാര്യം ഇല്ലല്ലോ അപ്പം എൻ്റെ ഈ അക്കാദമിയിൽ മാത്രം ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നുള്ളു ആ വേറെ ടീച്ചേഴ്സുണ്ട് എന്നെ സഹായിക്കാനായിട്ട് വേറെ ടീച്ചേഴ്സുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം വന്നാൽ അവർ അന്നത്തെ ക്ലാസവർ എടുത്തോളും ആ നിങ്ങൾക്ക് അപ്പം ചേരാൻ താല്പര്യം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം ആ അടുത്ത ദിവസം ഈ വെറ്റില അടയ്ക്ക നമ്മൾ ദക്ഷിണ വയ്ക്കണമല്ലോ നമ്മൾ ഒരു ഒരു ഇത് പഠിക്കുന്നതിന് മുമ്പ് ദക്ഷിണ വയ്ക്കണം അപ്പം ദക്ഷിണ വയ്ക്കുന്നതിന് വെറ്റിലയും അടയ്ക്കയും ആയിരത്തി ഒന്ന് രൂപയും ആയിട്ട് വന്ന് ദക്ഷിണ വച്ച് ഇട്ട് വേണം നമ്മൾ ഈ ഇത് തുടങ്ങാനായിട്ട് അപ്പം നിങ്ങൾ വരുവാണെന്ന് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെറ്റിലയും അടക്കയും ആയിരത്തി ഒന്ന് രൂപയും ആയിട്ട് വന്ന് ദക്ഷിണ വച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയേ